നമ്മുടെ കേരളത്തിൻ്റെ മാതൃഭാഷയെന്നു പറയുന്നത് മലയാളമാണ് അപ്പം നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചിരിക്കുന്ന ഭാഷയും മലയാളം തന്നെയാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ കുട്ടികളെ മാതൃഭാഷ പഠിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട് പ്രധാനമായിട്ടും അതിന് മലയാളത്തിനൊരു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നൊന്നും മലയാളത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കാണുന്നില്ല എന്നെയൊക്കെ ആദ്യമായിട്ട് മലയാളം എഴുതിക്കാനൊക്കെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ് അതിനു ശേഷം അത് ഒരു നാലു വയസ്സൊക്കെ ആയപ്പം എന്നെ ഇവിടെ ആശാൻ കളരിയെന്നു പറയും അവിടെ കൊണ്ടു വിട്ടിട്ടാണ് ഞാൻ മലയാളം പഠിക്കുന്നത് അത് എഴുതാൻ പഠിക്കുന്നത് മണലിലാണ് ആദ്യമായിട്ട് ഞാൻ എഴുതാൻ പഠിക്കുന്നത് വ്യഞ്ജനാക്ഷരങ്ങൾ സ്വരാക്ഷരങ്ങൾ കൂട്ടക്ഷരങ്ങൾ എന്നൊക്കെ പറഞ്ഞു കൊണ്ട് മണലിൽ എഴുതി അതായത് ആ ആ ഇ ഈന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നതാണ് സ്വരാക്ഷരങ്ങൾ കാ ഇക്ക ഗാ ഇക്ക ങ്ങ എന്നു പറഞ്ഞ് തുടങ്ങുന്നതാണ് വ്യഞ്ജനാക്ഷരങ്ങൾ അതുപോലെ ഇക്ക ഇങ്ക ഇങ്ങ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് കൂട്ടക്ഷരങ്ങൾ അങ്ങനെ ഞങ്ങൾ ഞാൻ ആദ്യമായിട്ടു പഠിക്കാൻ തുടങ്ങുന്നതു തന്നെ ആശാൻ കളരിയിലാണ് ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം പഠിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ ലാംഗ്വേജ് മലയാളമാണ് അതു കൊണ്ടു തന്നെ ഞാനതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഒന്നാം ക്ലാസ്സ് മുതൽ പ്ലസ് ടു വരെ മലയാളം ലാംഗ്വേജാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് സെക്കൻ ലാംഗ്വേജ് എടുത്തത് മലയാളമാണ് അപ്പം എന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ എനിക്ക് മലയാളത്തിന് നൂറ് മാർക്കുണ്ടായിരുന്നു എപ്പോഴും അതെ ഫുൾ മാർക്കായിരുന്നു എല്ലാ തവണയും പ്ലസ് ടു വരെ അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ വേറൊരു കാര്യം എന്താണെന്നു വെച്ചു കഴിഞ്ഞാൽ ഇന്നത്തെയൊക്കെ ഉള്ള തലമുറയിലെ കുട്ടികൾ പ്രധാനമായിട്ടും ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ടാണ് നോക്കുന്നത് മാതൃഭാഷയൊക്കെ കൂടുതൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായിട്ടാണ് നോക്കുന്നത് ഇംഗ്ലീഷിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇപ്പം മലയാള ഫാ എൻ്റെയൊരു കാഴ്ചപ്പാടിൽ മലയാള ഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിയെ കൊണ്ട് ഏതൊരു ഭാഷയും സംസാരിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം മലയാള ഭാഷ പഠിക്കാൻ അതായത് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഇങ്ങനെ സംസാരിക്കും മലയാള ഭാഷ അത്ര പാടാണ് സംസാരിക്കാൻ പക്ഷെ മറ്റു ഭാഷകൾ വെച്ചു നോക്കുമ്പം അത് മറ്റു ഭാഷകൾ സംസാരിക്കാൻ ഭയങ്കര ഈസിയാണ് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സോറി തമിഴിൽ തമിഴ് തമിഴെന്നു പറയും അത് മലയാളത്തിൽ വരുമ്പോൾ തമിഴെന്നു വരും മലയാളത്തിലെ ഴായാണ് തമിഴിലുള്ള മലയാളത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ലാംഗ്വേജാണ് ത തമിഴ് തമിഴ്ക്കാർ ആ ലാംഗ്വേജ് എത്ര ഴാ എന്നവർക്ക് വരത്തില്ല അവർക്ക് ളായെ വരത്തുള്ളൂ പക്ഷെ മലയാളികളെ സംബന്ധിച്ച് ഴായും ലായും എല്ലാം ഇപ്പോഴും വരും ഒരു എക്സാമ്പിളാണ് കേട്ടോ അതുപോലെയൊക്കെയാണ് അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മലയാളികൾക്ക് ഭയങ്കര എളുപ്പമാണ് പിന്നെ മലയാളം പഠിച്ചു കൊണ്ടുള്ള ഗുണമെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും എനിക്ക് മാതൃഭാഷ ഇഷ്ടമുള്ള ലാംഗ്വേജായതു കൊണ്ടു തന്നെ എനിക്ക് അറിഞ്ഞിരുന്നതു തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എവിടെ പോയാലും ഏതൊരു ഭാഷ സംസാരിക്കാൻ അതായത് അവരോട് തിരിച്ചു സംസാരിക്കാൻ കഴിയുന്നതും മലയാള ഭാഷയുടെ ഒരു ഗുണമായിട്ടു തന്നെയാണ് ഞാൻ കാണുന്നത്